ആ ഹലോ ഞങ്ങൾ എറണാകുളത്തുനിന്ന് വിളിക്കുവാണേ ആ നമുക്ക് അവിടെ ട്രക്കിങ്ങിന് പോവാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഏതൊക്കെയാണ് ട്രക്കിങ്ങ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് ആ ആ ആ ആ ആ ആ ആ കുറുമ്പാലക്കോട്ടെ എന്താണ് ആ ആ

ആ ആ ആ ഓക്കെ എത്ര രൂപയാണ് ചാർജ് ഇതിനപ്പം ആ അതെ ഫസ്റ്റ് ടൈം ആണ് ഓക്കെ എത്ര രൂപയാണ് ചാർജ് വരുന്നത് അതിനുള്ളിൽ ഫ്രീ തന്നെയാണ് അല്ലേ ആ ഇത് ഫ്രീ ആയിട്ട് തന്നെയാണോ ആ ആ ആ ആ അതിനും നമ്മൾ ചാർജ് മേടിക്കുന്നുണ്ടോ ആ ആ ആ അതിന് നമ്മൾ എത്ര രൂപ വെച്ചാണ് കൊടുക്കേണ്ടി വരിക അല്ല മറ്റേ ഫസ്റ്റ് പോവാനേ എത്ര രൂപ വെച്ചാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് ഓരോ ആൾകാർക്കോ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് പറയുവോ ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിട്ട് ഒന്ന് വരാനായിരുന്നേ ജസ്റ്റ് പോലെ ആ ആ മ് അത് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വീക്ക് ആയിട്ട് എന്തായാലും വരാനുള്ള പരിപാടി ആയിരുന്നു ഫാമിലി ആയിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നേ ആ ആ ഓക്കെ ടാക്സി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാം എന്തായാലും ആ ആ ആ ആയിക്കോട്ടെ